പാലക്കാട് ജില്ലയിലെ ജനപ്രിയമായ ചില കായിക പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത് കളി പിന്നെ ഓണത്തല്ല് വടംവലി അങ്ങനെ പന്ത് ചട്ടിപന്ത് അങ്ങനെ കുറെ പലതരം കളികളും കായിക രംഗങ്ങളും നമ്മുടെ വിനോദസഞ്ചാരങ്ങളും ഇവിടെ പാലക്കാടുണ്ട് ഇത് നമ്മുടെ ജില്ലയ്ക്ക് കൂടുതൽ പ്രശംസയും പിന്നെ ആത്മധൈര്യവും പിന്നെ ചില ആത്മവിശ്വാസവും നൽകുന്ന കുറച്ച് കാര്യങ്ങളിലൊന്നാണ് കാരണമെന്നു വെച്ചാൽ ഈ കായിക രംഗത്ത് മികവ് തെളിയിച്ചിട്ടാണ് അവര് മറ്റ് പല കായിക വിഭാഗങ്ങളിലും അതേപോലെത്തന്നെ മത്സരങ്ങളിലും പങ്കെടുത്ത് അവിടെ നമ്മുടെ ജില്ലയുടെ പേര് അവ പ്രശംസ ഏറ്റുവാങ്ങുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഈ കാര്യങ്ങൾ ആളുകളെ എങ്ങനെ ഒരുമിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉത്സവ കാര്യങ്ങളിലും ഓണത്തിനുമൊക്കെ ഓണത്തല്ല് വടംവലി ഉറിയടി അങ്ങനെത്തന്നെ കുറെ കായിക കായികൾ നടത്തുമ്പോൾ അത് നമ്മുടെ ഓരോ മത വിഭേജനമില്ലാതെ തന്നെ ആൾക്കാരെ ഒത്തുകൂടി ഒരുമിച്ച് മത്സരിക്കുകയും അതിനെ ഒരേപോലെത്തന്നെ സംഘാടകർ അതിനെ ഒരുമിച്ച് കൊണ്ട് പോവുകയും ചെയ്യുന്നു അതൊക്കെ എല്ലാവരേയും ഒരുമിക്കാൻ നമ്മുടെ സാമൂഹിക മോഹത്തിന് സംഭാവന നൽകുന്ന ഒരു പ്രവർത്തനങ്ങളിൽ ഒന്നാണ്